ഞങ്ങളുടെ പ്രദേശത്ത് കുറ്റകൃത്യങ്ങളും അപകടങ്ങളും ഒഴിവാക്കുന്നത് ഞങ്ങൾ പോലീസുകാരോട് ചെന്ന് പറയുമ്പോൾ കഞ്ചാവ് എന്താണ് ബീഡി പിന്നെ അതേപോലെ തന്നെ ഈ കള്ള് കള്ള് അത് ഒഴിവാക്കാന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കുട്ടികള് കുട്ടികളെന്ന് പറഞ്ഞാൽ ചെക്കന്മാർ കുറച്ചോളമുണ്ട് ആ കുട്ടികൾ അത് ഒഴിക്കിത്തരണം എന്ന് പറയും അപ്പം അവർ വരും അവർ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അത് വരിച്ചാല് ഇന്നതാണ് വരിക എന്നുള്ളതൊക്കെ വരിക കുറേ ഉപദേശങ്ങളൊക്കൊ കൊടുക്കും അപ്പം അത് കേട്ടിട്ട് ചിലർ അതൊഴിവാക്കുന്നുണ്ട് ചിലവർ പിന്നേയും അത് തുടര്ന്നു കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ചീട്ടുകളി പിന്നെ അതേപോലെ ഇപ്പം അധികം പെണ്ണ് പിടിയാണ് അല്ലാതെ ഇപ്പോൾ എന്താണ് കള്ള് കള്ള് കിടിയും പെണ്ണ് പിടിയും അതാണ് ഇപ്പോൾ നടന്ന് പോകുന്നത് ഇപ്പം അതാണ് അതിനൊക്കെ അവർ വന്ന് അവര്ക്കുള്ളെ ഉപദേശങ്ങളും നിര്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ

അത്ര തന്നയേ ഉള്ളൂ ഇവിടെ